പതിനാല് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുപ്പത് ആറ് രണ്ടായിരത്തി ഒൻപത് രണ്ട് നാല് രണ്ടായിരത്തി ആറ് ഏഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ട്